ഞാൻ സംഘടിത ഒരു ബൈക്കിംഗ് പരിപാടിക്ക് ന പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടീട്ടാണ് ഞാൻ അതിനകത്ത് പോയത് അപ്പം നല്ല മഴയത്താണ് ഞാൻ പോയത് അപ്പം ഒന്നു രണ്ടു വട്ടം വീഴോം കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ റേയ്സിംഗും കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു നല്ല ഓഫ് റോഡ് ആയിരിന്നു അതായത് നല്ല കല്ല് വലിയ കല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ചെറുതായിട്ട് വീഴോം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പേടിയായിട്ട് ഉണ്ടായിരുന്നു കാരണം വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പൈസ മുടക്കണോല്ലോ പിന്നെ ഒരു ഹരായിട്ടങ്ങ് കയറിപ്പോയി നല്ല നല്ല ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്